ഇന്നത്തെ കാലത്ത് നമ്മൾ പലരും പുതുതലമുറയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ പഴയ തലമുറയുടെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്നു ചില കാര്യങ്ങൾ എന്നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല പഴയ തലമുറയിലെ പല കാര്യങ്ങളും വളരെ സന്തോഷം ഏറിയതും അതേപോലെതന്നെ വളരെ നല്ല കാര്യങ്ങളുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും അതെല്ലാം മറന്ന് പുതുതലമുറയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ പുതുതലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി ഈ പഴയ തലമുറയിലെ കാര്യങ്ങൾ എത്തിച്ചേർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് നമുക്ക് ഉള്ളത് നമ്മൾ പഴയ തലമുറയിലെ ആൾക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാൽ പുതു തലമുറയിലെ ആൾക്കാർ ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ ഈ പഴയ തലമുറയിലെ കാര്യങ്ങൾ നമ്മൾ പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ടതായി ഉണ്ട് നമ്മളെ നമുക്ക് മധ്യ തലമുറ എന്നുകൂടി പറയാം ഈ മധ്യ തലമുറയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ഈ പഴയ തലമുറയിലെ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ പുതുതലമുറയിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പഴയ തലമുറയിലെ എല്ലാകാര്യങ്ങളും അതേപോലെ കൊണ്ടുനടക്കണം എന്നല്ല പറയുന്നത് എന്നാൽ അതിലെ ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾകൊണ്ട് അത് എല്ലാവർക്കും പങ്കുവെക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്